കേരളത്തിൽ പകര്ച്ചവ്യാധികള് നിയന്ത്രണ വിധേയമാണെന്ന് കരുതുന്നില്ല പകര്ച്ചവ്യാധികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമുക്ക് പകര്ച്ചവ്യാധികൾ ഒത്തിരി ഉണ്ട് അതായത് മഞ്ഞപ്പിത്തം ടൈഫോയിഡ് കോളറ മന്ത് അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾ ഇന്ന് നമുക്ക് ഇവിടെ പകരുന്നുണ്ട് അത് പിന്നെ നമുക്ക് വെള്ളത്തിൽക്കൂടെ പകരുന്ന ഒരുപാട് രോഗങ്ങൾ ഉണ്ട് അതിനെല്ലാം നമ്മൾ കുറച്ചൊക്കെ നമ്മൾ നമുക്ക് തന്നെ ഈ രോഗങ്ങൾ നമുക്ക് വരുത്താതിരിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളേ നമ്മുടെ വീടുകൾ നമ്മൾ ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുക അതുപോലെ എല്ലാത്തിൻറെയും വേസ്റ്റുകൾ കുറച്ച് നമ്മൾ കളയുന്നതും എടുക്കുന്നതും എല്ലാം നമ്മൾ നോക്കിയും കണ്ടും സൂക്ഷിച്ച് ഒക്കെ കളയുക പിന്നെ നമ്മുടെ വീടുകളെല്ലാം നമ്മൾ ഡെറ്റോൾ ഡെറ്റോൾ ഒഴിച്ച് എല്ലാം എപ്പൊളും ക്ലീൻ ആക്കുക മുറികളെല്ലാം നല്ലത് പോലെ ശുദ്ധിയാക്കുക ഡെറ്റോൾ ഒഴിച്ച് കഴുകുക ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ടേബിൾ ആണെങ്കിലും നല്ലത് പോലെ ക്ലീൻ ആക്കി സൂക്ഷിക്കുക അങ്ങനെയൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രോഗങ്ങളെ ഒക്കെ കുറിച്ചൊക്കെ നമുക്ക് വരാതിരിക്കാൻ പറ്റും അല്ലാതെ നമ്മളിപ്പം എന്തെങ്കിലും രോഗം വന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഡോക്ടറുടെ അടുത്ത് പോയി നമ്മൾ അതിനുള്ള മരുന്ന് മേടിച്ചു അല്ലെങ്കിൽ നമ്മളെ അവിടെ കിടത്തി ചികിത്സിച്ചു ഇങ്ങനെയൊക്കെ ഇതൊന്നും അല്ല അത് വേണം പക്ഷേ നമ്മൾ കൂടുതലും നമുക്ക് നമ്മളെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വൃത്തിയാണ് ഏറ്റവും അത്യാവശ്യം ഉള്ളത് അതൊക്കെ നമ്മൾ കഴിയുന്നതും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വീട്ടിൽ ചെയ്യണം അങ്ങനെ കുറേ രോഗങ്ങൾ നമുക്ക് വരാതിരിക്കും പ പച്ചക്കറികളെല്ലാം തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ വീടുകളിൽ നട്ടിരിക്കുന്ന പച്ചക്കറികൾ ഇപ്പം നമുക്ക് കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ വീട്ടില് നട്ടിരിക്കുന്നത് നമുക്ക് വെറുതെ അന്നേരം തന്നെ ഒന്ന് കഴുകി എടുത്ത് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ നമ്മൾ മാര്ക്കറ്റില് നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികൾ ഇന്നത്തെ കാലത്ത് പച്കക്കറികൾ എല്ലാം തന്നെ വിഷം അടിക്കുന്ന പച്ചക്കറികളാണ് അത് നമ്മൾ നന്നായിട്ട് തലേദിവസം ഇപ്പം പിറ്റേ ദിവസം കാലത്തേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് മഞ്ഞപ്പൊടി ഇട്ട് അതുപോലെ വിനാഗിരി ഒഴിച്ചോ അങ്ങനെയൊക്കെ ഇട്ട് നല്ലത് പോലെ ഇത്തിരി നേരം വെള്ളത്തിൽ നമ്മൾ ഇടണം എന്നിട്ട് വേണം നമ്മൾ അരിഞ്ഞ് നമ്മൾ വൃത്തിയാക്കി നമ്മൾ ഉണ്ടാക്കാനായിട്ട് അങ്ങനെയൊക്കെ നമ്മൾ കുറേയൊക്കെ സൂക്ഷിച്ചാൽ നമുക്ക് ഈ രോഗങ്ങളെല്ലാം വരാതിരിക്കും അതുപോലെ വെള്ളം ആണെന്നുണ്ടെങ്കിലും വെള്ളം നമ്മൾ കിട്ടുന്ന വെള്ളം ഇപ്പം എല്ലാ വീടുകളിലും ഇന്ന് ഒരുമാതിരി എല്ലാ വീടുകളിലും കിണറുകൾ ഉണ്ട് കിണറ്റിലെ വെള്ളം ആണെന്നുണ്ടെങ്കിൽ കിണറ്റിലെ വെള്ളം ആണെങ്കിലും ഇപ്പം എല്ലാ വീടുകളിലും അതിൽ നിന്ന് മോട്ടോർ അടിച്ചാണ് പൈപ്പ് വഴിയാണ് എല്ലാവരും വെള്ളം എടുക്കുന്നത് കിണറില് നിന്ന് വെള്ളം കോരി എടുക്കുന്നവർ വളരെ ചുരുക്കം ഉള്ളൂ എന്നാലും വെള്ളം കോരിയെടുത്ത് കുടിക്കുന്നത് ആണെങ്കിലും അതും തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കുടിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ അതിൽ നമ്മൾ ചെറിയ ഇത്തിരി ജീരകമോ അല്ലെങ്കിൽ തുളസി ഇലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം നമ്മൾ കുടിക്കാനും കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലും കൊടുത്തുവിടാനും അങ്ങനെ കുറേ ഒരുപാട് നമ്മൾ രോഗങ്ങളിൽ നിന്ന് നമുക്ക് തന്നെ അകറ്റാൻ പറ്റും അത് പോലെ മ മലമ്പനി ഈ കൊതുക് പ കൊതുകില് നിന്നാണെങ്കിലും നമ്മൾ ഒരുപാട് രോഗങ്ങൾ നമുക്ക് ഉണ്ടാകും അപ്പം കൊതുകില് നിന്ന് നമ്മളിപ്പം ചെയ്യാണേൽ എന്താണ് പറയുക അതും എല്ലാം വൃത്തിയായി നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയായി സൂക്ഷിച്ചാലേ ഈ രോഗങ്ങളില് നിന്നെല്ലാം നമുക്ക് മോചിതരാകാൻ പറ്റൂ വാക്സിനേഷൻ എല്ലാമുണ്ട് എന്നാലും വാക്സിനേഷൻ എടുത്ത എടുക്കുന്നവര്ക്കും ഈ രോഗങ്ങളെല്ലാം വരുന്നുണ്ട് ഈ രോഗങ്ങള്ക്കെല്ലാം നമ്മൾ അടിമയാവുന്നുണ്ട് ഈ രോഗങ്ങൾ വന്നു കളാ എല്ലാ എല്ലാവരും പറയും വാക്സിനേഷൻ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ രോഗങ്ങൾ വരത്തില്ല അത് വെറുതെയാണ് വാക്സിനേഷൻ എടുത്തവര്ക്കും എല്ലാ രോഗങ്ങളും വരുന്നുണ്ട് പകര്ച്ചവ്യാധികൾ എല്ലാം വരുന്നുണ്ട് അങ്ങനെ ഇത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറേക്കൂടെ ഒത്തിരിയും നമുക്ക് ഈ രോഗങ്ങളിൽ നിന്നെല്ലാം മോചിതരാകാൻ പറ്റും സ് സ്വന്തമായിട്ട് എപ്പോഴും ശുചിത്വമാണ് വേണ്ടത് നമ്മൾ വൃത്തിയായിട്ട് നടക്കുക കുളിക്കുക നമ്മൾ എന്ത് സാധനം ചെയ്താലും വീണ്ടും നമ്മൾ ഭക്ഷണം കഴിക്കാം ഇപ്പം നമ്മളൊരു നിസ്സാര ഒരു രോഗിക്ക് രോഗിയെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേണമെങ്കിൽ ആ ആവേശത്തിന് വന്ന് വിശപ്പിന്റെ ഇതുകൊണ്ട് വേഗം കഴിക്കും പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ വൃത്തിയായിട്ട് കീ ക്ലീൻ ആയിട്ട് നമ്മുടെ ഹാൻഡ് വാഷിങ്ങ് നല്ലെ ഡെറ്റോൾ സോപ്പ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ഡെറ്റോൾ ഒഴിച്ച് കഴുകുക നന്നായിട്ട് കയ്യൊക്കെ കഴുകി നമ്മൾ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ക്രമീകരിക്കുക ഭക്ഷണങ്ങൾ എല്ലാം നമ്മൾ മൂടി വയ്ക്കണം ഉണ്ടാക്കിക്കഴിഞ്ഞ് നമ്മൾ മൂടി വയ്ക്കണം നമ്മൾ ചിലപ്പം തുറന്ന് നോക്കിയേച്ച് അത് അങ്ങനെ തന്നെ തുറന്ന് വെച്ചിട്ട് തന്നെ പോകും അപ്പം നമ്മൾ അതിനകത്ത് വല്ല പ്രാണിയോ ഈച്ചയോ ഇപ്പം പിന്നെ മഴക്കാലം ആയതുകൊണ്ട് വല്ല അട്ടയോ അങ്ങനെ കുറേ പുഴുവോ എല്ലാം കൂടെ കയറി നമ്മൾ ചിലപ്പം കണ്ണിന് കാഴ്ചയില്ലാത്തവരൊക്കെയാണ് കറിയും ചോറും ഒക്കെ വിളമ്പുന്നതെങ്കില് അതെല്ലാം കൂടെക്കൂടി നമ്മൾ വയറ്റിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതൽ ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ അങ്ങനെ അസുഖങ്ങൾ ഒരുപാടുകൾ ഒരുപാട് രോഗങ്ങൾ നമുക്ക് വരും അതൊക്കെ നമ്മൾ ക്രമീകരിക്കണം നമ്മൾ തന്നെ കുറേ ഒക്കെ നമ്മളെ തന്നെ നോക്കണം അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് രോഗങ്ങളില്ലാതെ ആകാൻ പറ്റും